ഹലോ ഇത് ബോട്ടിന്റെ സർവീസല്ലേ ഓക്കേ സോറി നിങ്ങളുടെ ഒരു ചാർജറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ബോട്ടിന്റെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ഒരു ചാർജർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം തൗസൻഡ് ടു ഹൺഡ്രഡ് എന്തോ ആണ് അതിൻ്റെ എം ആർ പി ഉണ്ടായിരുന്നത് പക്ഷെ എന്തോ ഓഫർ പ്രമാണിച്ച് എനിക്ക് ഏകദേശം എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് സാധനം കിട്ടിയത് അത് അത് നിങ്ങളുടെ തന്നെയൊരു ട്വൻറ്റി വാട്ട്സിന്റെ ഒരു വൈറ്റ് കളറായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് ഇന്നാണ് ഇപ്പോൾ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ടു വീക്സോളമായി എന്താണാവോ അതിൻറ്റെ ഇടയിലൊരു ഡിലേ വന്നു ഞാനത് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡിസ്പാച്ച്ഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു രീതിക്കുള്ള ഫോളോ അപ്പും അത് എന്റെ കൈയിൽ വന്നിട്ടില്ല നിങ്ങളുടെ കസ്റ്റമർ സർവീസിലാണെങ്കിലും വിളിച്ചിട്ടും നിങ്ങൾക്കൊരു ഇനി ഇപ്പം ഇത് നിങ്ങൾ അയച്ചിട്ടുള്ള കൊറിയർ സർവീസിലായിട്ട് ബന്ധപെടാനാണ് പറയുന്നത് പക്ഷെ അവരുടേതായിട്ടുള്ള ഒരു ഡീറ്റയിൽസും നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുമില്ല അതേപോലെ ഓക്കേ ഒരു മാ രണ്ടാഴ്ച്ച ഡിലേ വന്നു ഓക്കേ ഞാനത് വിട്ടു കുഴപ്പമില്ല നമുക്ക് പ്രൊഡക്റ്റ് വന്നു പ്രൊഡക്റ്റ് വന്നപ്പോൾ പാക്കേജ് വളരെ മോശം കണ്ടീഷനിലായിരുന്നു വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം അത് പാക്കേജ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അതില് കുറെ അധികം ഡെസ്റ്റും ഈ ചാർജെറ് യൂസ്ഡ് ആണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ഇത് ഒരു ഞാന് ഒന്നാമത്തെ ഓർഡറെയ്തത് ഞാനൊരു വൈറ്റ് കളർ ചാർജറാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ എനിക്ക് കിട്ടി വന്നപ്പോൾ അത് ബ്ലാക്ക് കളറായി ബ്ലാക്ക് കളറായി ഓക്കേ കളേഴ്സ് ഞാനത് വിട്ടു പക്ഷെ അതേ കളറിൽ തന്നെ ഈ കേബിള് കേബിളിന്റെ അറ്റം അതായത് യു എസ് ബി ഭാഗം ഇടുന്ന നമ്മളുടെ ഈ അഡാപ്റ്റർലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു ആ കേബിളില് ഒരു കീറല് ഉണ്ട് കളേഴ്സ് ഞാനത് വിട്ടു പക്ഷെ അതേ കളറിൽ തന്നെ ഈ കേബിള് കേബിളിന്റെ അറ്റം അതായത് യു എസ് ബി ഭാഗം ഇടുന്ന നമ്മളുടെ ഈ അഡാപ്റ്റർലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു ആ കേബിളില് ഒരു കീറല് ഉണ്ട് അത് ഫങ്ക്ഷനിങ് അല്ല ചാർജറ് വർക്ക് ചെയ്യുന്നില്ല ഞാൻ സം കുറെയധികം പ്ലെഗില് വെച്ചിട്ട് തന്നെ ഫോണില് കണക്ട് ചെയ്ത് നോക്കി പക്ഷെ ചാർജറ് വർക്കിംഗ് അല്ല നിങ്ങളുടെ എന്ത് സർവീസാണ് നിങ്ങളിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതില് മുന്നേ ബോട്ടിന്റെ സാധങ്ങൾ അത് നിങ്ങളുടെ വെബ്സൈറ്റ് അല്ല ആമസോൺ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് പക്കാ ആയിട്ട് പാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പ്രോഡക്റ്റ് നല്ല രീതിക്ക് വർക്ക് ചെ യ്യുന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ ഡയറക്റ്റ് നിങ്ങളുടെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തിട്ട് ഇതാ അവസ്ഥയെങ്കിൽ എന്താ കാര്യമുള്ളത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തു ഓർഡറ് ഡിലേ ആയി അപ്പം ഞാൻ നിങ്ങളുടെ കസ്റ്റമർ സർവീസില് മെസ്സേജ് അയച്ചു നോക്കി എനിക്ക് പ്രോഡക്റ്റ് ലേയ്റ്റാകുന്നുണ്ട് എന്താ റീസൺ അപ്പോൾ അവര് പറയുന്നത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഡിസ്പാച്ച് ചെയ്ത് ഞങ്ങള് വിട്ടിട്ടുണ്ട് അത് കൊറിയർ സർവീസിലേക്ക് അന്വേഷിച്ചു പക്ഷെ കൊറിയർ സർവീസില് ആയിട്ട് ബന്ധപെടാനായിട്ടുള്ളൊരു നമ്പറുകളോ ഒന്നും നിങ്ങളയച്ച്ന്നിട്ടില്ല അല്ലങ്കിൽ അവരായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന വല്ല ലിങ്കോ ട്രാക്കിങ്ങിൻറ്റെ ഒന്നും കണ്ടിട്ടില്ല എനിക്ക് ആദ്യം പ്രോഡക്റ്റ് ഇതായി വന്നപ്പോൾ ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു അതില് നമുക്ക് പ്രോഡക്റ്റ് എവിടെക്ക് എത്തി എന്ന് കാണിക്കാം കാണുന്നുണ്ട് അത് ഏതോ ഒരു റീജിയൺ എത്തിയപ്പോൾ അതവിടെ നിന്നു ഒരേകദേശം ഒരു കുറച്ചധികം ദിവസം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇന്ന് ആണിപ്പം പാക്കേജ് കിട്ടുന്നത് ഞാനൊരിക്കലും ബോട്ട് എന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു ബ്രാൻഡിൽ നിന്ന് ഇത്രയും ഒരു മോശം എക്സ്പീരിയൻസ് ഒരിക്കലും ഫീൽ ചെയ്യേണ്ട വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം അത്യാവശ്യം സെലിബ്രിറ്റീസ് അഡ്വർട്ടൈസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അത്യാവശ്യം റിവ്യു ഉള്ള പ്രോഡക്റ്റാണ് പക്ഷെ നിങ്ങളുടെ സർവീസ് വളരെ മോശമായിപ്പോയി എനിക്ക് പ്രോഡക്റ്റ് മോശമായതിനെക്കാട്ടും ഏറ്റവുമധികം മോശമായി തോന്നിയത് നിങ്ങളുടെ സർവീസാണ് അതായത് ഒരു കസ്റ്റമറ് വിളിച്ചു കഴിഞ്ഞാല് അല്ലങ്കിൽ കസ്റ്റമറ് ഡെലിവറി റിലേറ്റഡ് എൻക്വയറി ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ മര്യാദയ്ക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് സൊലൂഷൻ അല്ലെങ്കിൽ അതിനൊരു ഒരു വഴി കണ്ടെത്തി കൊടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളെന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്തിനാണ് അങ്ങനത്തൊരു ഒരു സർവീസ് വളരെ മോശമായിപ്പോയി ബോട്ട് എന്ന് പറയുന്ന നല്ലൊരു ബ്രാൻറ്റിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാന് ഇപ്പോൾ എനിക്ക് ഞാന് ട്രാവല് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആളാണ് എനിക്ക് പുറത്ത് പോയി വാങ്ങാനുള്ള തിരക്ക് മൂലമാണ് ഞാൻ ഓൺലൈൻ ചെയ്തത് അപ്പോൾ ഓൺലൈനാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടുമല്ലൊ പക്ഷെ ഇതിപ്പോൾ ലെയിറ്റായി ലെയിറ്റ് ആയത് കൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ എനിക്ക് നാളെ പോകണം എനിക്ക് ഇതിന്റെ ഇടയിൽ പോയി ഒര് ചാർജറ് വാങ്ങാൻ പറ്റില്ല ഇതിന്റെ ഇടയില് ഞാനിനിങ്ങനെ സമയം കണ്ടെത്തി അതിന് പോകണം ഞാനത് മുൻകൂട്ടി സാധനം കിട്ടണമെങ്കിൽ ഇൻകേസ് അതില് പ്രശ്നങ്ങള് ഉണ്ടെങ്കിൽ റിട്ടേണും കൂടി ചെയ്യലോ അങ്ങനത്തെ ഒരു ടൈം ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഓർഡർ ചെയ്തത് പക്ഷെ ഇതിപ്പോൾ രണ്ടാഴ്ച്ച ഡിലേ ആയി കാരണം ഇപ്പോൾ പ്രോഡക്റ്റും മോശമാണ് എനിക്ക് എന്തായാലും എനിക്ക് വേറെ പ്രോഡക്റ്റ് ഒന്നല്ലെങ്കിൽ എനിക്ക് വേറെ പ്രോഡക്റ്റ് തരണം പ്രോപ്പർ ആയിട്ടുള്ള പക്കാ ആയിട്ടുള്ള പ്രോഡക്റ്റ് വൺ മോർ തിങ്ങ് ആ ബോക്സിനകത്ത് നിങ്ങൾക്ക് എപ്പഴും ഒരു വാറണ്ടി കാർഡ് വരും എനിക്ക് അതിലൊരു വാറണ്ടി കാർഡോ അതിൻ്റെ ബില്ലിങ് ഡീറ്റയിൽസോ ഒന്നും അതിൻ്റെ ഒരു ബോട്ടിന്റ്റേതായിട്ട് ഒരൊറ്റ പേപ്പർ വർക്കസും എനിക്കാ ബോക്സിന്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടില്ല ഇത്ര സില്ലി ആയിട്ടാണോ നിങ്ങളൊരു കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് ഞാന് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് എനിക്കിത്ര പ്രശ്നമുണ്ടായിട്ടില്ലല്ലോ അവര് നിങ്ങളുടെ പ്രോഡക്റ്റ് അവര് പാക്ക് ചെയ്തിട്ട് അയച്ചിട്ട് എനിക്ക് എന്റെ എല്ലാ പക്കാ ആയിട്ട് ഡീറ്റൈൽസ് കിട്ടിയിരുന്നു ഞാൻ ഓർഡർ ചെയ്ത് ഒരു ത്രീ ടു ഫോർ ഡേയ്സിന്റെകത്ത് എനിക്ക് പ്രോഡക്റ്റ് കിട്ടി പക്കാ ആയിട്ട് പക്കാ പ്രോഡക്റ്റ് അത് യൂസ്ഡ് ആയിരുന്നില്ല നൈസ് പ്രൊഡക്ട് അത് ബോട്ടിന്റ തന്നെ ഇത് നിങ്ങള് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തൊരു പ്രോഡക്റ്റ് പാക്കേജിങ് മോശം അതിനകത്തുള്ള പേപ്പർ വർക്ക്സ് ഇല്ല ഓൾറെഡി യൂസ്ഡ് ഒരു ചാർജർ ഓൾറെഡി യൂസ്ഡ് ആണ് അത് ഞാൻ പറഞ്ഞു അത് പോട്ടെന്ന് കേബിള് പൊട്ടിയിട്ടുണ്ട് ആൻഡ് ദി അഡാപ്റ്റർ ഈസ് നോട്ട് വർക്കിംഗ് ഞാൻ വേറെ കേബിളായിട്ട് കണക്ട് ചെയ്ത് നോക്കി അഡാപ്റ്റർ വർക്കിങ് അല്ല എന്റെ എന്റെ രണ്ട് മൂന്ന് ഫോൺസുണ്ട് ടൈപ്പ് സി പോർട്ട് ടൈപ്പ് സി കേബിളാണ് ഞാന് ചാർജറ് വരുന്നത് അത് രണ്ട് മൂന്ന് ഫോൺസിലും കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല നിങ്ങളുടെ പോലത്തെ ഞാൻ ഒരിക്കലും ഞാന് ഒരിക്കലും ബോട്ട് എന്ന് പറയുന്ന നമ്മളിത്ര ഒരു ചാർജറ് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് നമ്മള് എടുക്കണം എന്നുണ്ടെങ്കില് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡായ കാരണവല്ലേ അങ്ങനെ എടുക്കുന്നുണ്ടാവുക പക്ഷെ വളരെ മോശം എക്സ്പീരിയൻസ് ആയിപോയി എനിക്ക് കസ്റ്റമർ സർവീസും വളരെ മോശം പാക്കേജിങ് വളരെ മോശം പ്രോഡക്റ്റ് അയച്ചിട്ടുള്ളതും പ്രോഡക്റ്റ് നിങ്ങള് മര്യാദയ്ക്ക് നോക്കിയിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് കാരണം ഇതിനകത്തോരൊറ്റ അതിന്റെ പേപ്പർ വർക്ക്സുകളോ ഇതെങ്ങനെയാണിതിൻറ്റെ വാറണ്ടി പീരിയഡ് എന്നോ ഒന്നും കാണിച്ചിട്ടില്ല ബില്ലിംഗ് കാണിച്ചിട്ടില്ല വളരെ മോശം എക്സ്പീരിയൻസായിപ്പോയി എനിക്കെന്തായാലും ഒന്നല്ലെങ്കിൽ റീഫണ്ട് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് സെയിം പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് പോല പ്രോഡക്റ്റ് കിട്ടണം പക്ഷെ അത് വിതിൻ ത്രീ ടു ഫോർ ഡേയ്സിനകത്ത് എനിക്കാ പ്രൊഡക്റ്റ് കിട്ടിയിരിക്കണം സൊ ഞാനിത് തിരിച്ചയക്കുന്നുണ്ട് നിങ്ങള് എങ്ങനെയാന്ന് വെച്ചാല് അതിന്റെ പ്രൊസീഡിങ്ങ്സ് ചെയ്യുക ഇത് ഞാൻ എനിക്ക് കിട്ടിയ പോലെ തന്നെ അയക്കുന്നുണ്ട് ഞാൻ ഇതിനകത്ത് ഫോട്ടോസും വീഡിയോസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്റെ റീഫണ്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിട്ട് തിരിച്ചു കിട്ടണം ഓക്കേ